ഹലോ വയനാട് റെസ്റ്റോറൻറ്റ് അല്ലേ ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്തുനിന്ന് വരുന്നതാണേ അപ്പം ആ അതെ അതെ അപ്പം നമ്മൾ പിന്നെ ഈ മാസം പതിനെട്ടാം തീയതിയാണ് വരുന്നത് നൈറ്റ് ഒക്കെ ഓപ്പൺ അല്ലേ നൈറ്റ് എത്ര മണിവരെ പന്ത്രണ്ട് മണി വരെ ഉണ്ടോ ഹാ ഹാ ഹാ ഓക്കേ അപ്പം നമ്മൾ ഒരു ഒമ്പത് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും നമ്മൾ ഒരു അമ്പത് പേരുണ്ട് ബസിൽ ആണ് വരുന്നത് നമുക്ക് ഫുഡ് അറേഞ്ച്മെന്റ് ഒക്കെ നിങ്ങൾ ചെയ്യില്ലേ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഹാ അതെ അതെ അമ്പത് പേര് അപ്പം നമ്മൾ മുൻകൂട്ടി മേശയൊക്കേ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ ആ ഓക്കേ അപ്പം പിന്നെ ഫുഡ് നമുക്ക് പിന്നെ ബിരിയാണി മതി ചിക്കൻ ബിരിയാണി മതി അമ്പതെണ്ണം ആ ഓക്കേ നമ്മൾ ഗൂഗിൾ പേ അങ്ങനെ എന്തെങ്കിലും നേരത്തെ ചെയ്യണോ ആ ചെയ്യാം ആ അഡ്വാൻസ് ആ ഓക്കേ അഡ്വാൻസ് ഒരു ത്രീ തൗസൻഡ് ആ ത്രീ തൗസൻഡ് അങ്ങനെ ഇട്ടു തരാം എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ ഉണ്ടോ ഹാ ആണോ ആണോ ആ ഓക്കേ ആ എന്നാൽ ഓക്കേ എന്നാൽ നമ്മൾ വരുമ്പോൾ നിങ്ങളെ ഒന്നുകൂടെ വിളിക്കാം